ഇവിടെ ക്ലീനിക്ക് ഇടുക്കി ജില്ലയിൽ ഇഷ്ടംപോലെ ക്ലിനിക്കുകളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ആയുർവേദ മെഡിക്കൽ കോളേജുകളുണ്ട് ആയുർവേദ ഹോസ്പിറ്റലുകളുണ്ട് നമുക്കവിടെ അസുഖങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പം പൈസ കുറവുള്ളയിടത്താണ് എല്ലാവരും ഓടി പോവുന്നത് പക്ഷേ എല്ലായിടത്തും പൈസ വേണം അഞ്ചു രൂപ പത്തു രൂപ അങ്ങനെ ടിക്കറ്റിനാണ് പക്ഷേ വെള്ളം തിളപ്പിക്കാൻ പൊടി വരെയും കൂടെ പൈസ കൊടുത്താലേ കിട്ടുകയുളളൂ അത് നല്ലതാണല്ലോയെന്ന് ഓർത്തുകൊണ്ട് ആരോഗ്യത്തിന് കൂടുതലും നല്ലതാണല്ലോ മെച്ചമാണല്ലോയെന്ന് ഓർത്തുകൊണ്ടിങ്ങനെ പോവും പിന്നെ എല്ലായിടത്തും പൈസ പൈസ ഉണ്ടെങ്കിലേ മരുന്ന് കിട്ടുകയുളളൂ കടം പറയാനും അങ്ങനെയൊന്നും പറ്റുകയില്ലല്ലോ ഹോസ്പിറ്റലുകളാണെങ്കിലും തോപ്രാങ്കുടിയിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ എല്ലാ ജില്ലകളിലും അടുത്തടുത്തടുത്തുണ്ട് ഇപ്പം തോപ്രാങ്കുടിയിൽത്തന്നെ അഞ്ചാറ് ക്ലിനിക്കുകളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ആയുർവേദ ഹോസ്പിറ്റലുകളുണ്ട് പിന്നെ പൈനാവിൽ മെഡിക്കൽ കോളേജുണ്ട് അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മെഡിസിന് ലഭ്യമാണ് പക്ഷേ പൈസ എല്ലാത്തിനും കൂടുതലുമാണ് സാധാരണക്കാർക്കത് ബുദ്ധിമുട്ടാണ് കാരണം പരമാവധി നോക്കും എന്തെങ്കിലും ഒരസുഖം വരുമ്പം പോകാതിരിക്കുക അങ്ങനെ പക്ഷേ ഇപ്പം കോവിഡ് വന്നതിനുശേഷം എല്ലാവർക്കും ക്ഷീണമാണ് പെട്ടന്ന് പെട്ടെന്ന് രോഗങ്ങൾ വരുന്നു അസ്വസ്ഥത വരുന്നു അപ്പോൾ എല്ലാവരും പെട്ടന്ന് പെട്ടെന്ന് പെട്ടെന്നു പോവും പിന്നെ കോവിഡ് കാലത്ത് എല്ലാ ഹോസ്പിറ്റലുകളും ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ചെല്ലുമ്പം അവർക്ക് പേടി കാരണം കോവിഡ് കോവിഡ് ബാധിച്ചാണോ എങ്ങനെയാണ് എന്നവർക്ക് പേടിയവർ ടെസ്റ്റ് ചെയ്ത് നമ്മൾ മരുന്നു മേടിക്കാനൊക്കെ പോകുമ്പോഴാണെങ്കിൽ അല്ലെങ്കിലൊരു പനിയോ ജലദോഷമോ അങ്ങനെ വരുമ്പോഴാണെങ്കിലും ആൾക്കാർക്ക് പേടി ഇത് പകരുന്നതാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് അന്നേരം പകുതി സ്റ്റാഫ് ഉണ്ടാവുകയില്ല എന്നാലും ചെല്ലും നമ്മുടെ ഇതിൽ പിന്നെ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് രോഗങ്ങൾ വീട്ടിലിരുന്ന് അത് മാറാനുള്ള മരുന്നും കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ നോക്കും പിന്നെ ഹോസ്പിറ്റലുകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എന്നാലും എല്ലാവരും പോവുമ്പോഴൊക്കെ ആണെങ്കിലും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് ചെറിയ രീതിയിലൊക്കെയുള്ള മരുന്നിങ്ങനെ കിട്ടും മരുന്ന് കിട്ടുമ്പോൾ അത് എങ്ങോട്ട് പോകണം എന്തു ചെയ്യണം എവിടേയ്ക്ക് പോകണം എന്നുള്ളൊരു ഒരു ടെൻഷനായിരുന്നു അപ്പോൾ ഈ രോഗങ്ങളുള്ള ഹോസ്പിറ്റലുകൾ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പം ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് പിടിക്കുകയും ഹോസ്പിറ്റലിൽനിന്ന് പിടിക്കുമോ എന്നുള്ളൊരു പേടിച്ചിട്ട് പേടിച്ചിട്ട് പോകാതിരിക്കും പക്ഷേ എന്നാലും എല്ലാവരും പ്രവർത്തന ഇതുമായിട്ട് നല്ല ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി പോകാണ്ടിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നിരുന്നു കേട്ടോ ഹോസ്പിറ്റലുകളിലെ അപ്പോഴത് എങ്ങനെയാണെന്നു വെച്ചെന്നാൽ ഒരുപാട് മഹാമാരിയുടെ സമയത്തൊക്കെ ആയാലും ആശുപത്രി എല്ലാം തന്നെ തുറന്നു വെച്ചു കാരണം ജീവൻ്റെ വിലയല്ലേ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പം ജീവൻ്റെ വില അമ്മാനമാടാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ട് മരുന്നുകളും ഇഞ്ചക്ഷനും അല്ല എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ ഹോസ്പിറ്റലുകളൊക്കെ ഇഷ്ടംപോലെ എല്ലായിടത്തും ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കൊരു രോഗം വന്നാലും പെട്ടെന്ന് ഓടാനും പെട്ടെന്നതിനുള്ള സൗകര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റൽ മുരിക്കാശ്ശേരിയിലുണ്ട് പിന്നെ വാത്തുക്കുടിയിലുണ്ട് അങ്ങനെ ഒത്തിരി ഇങ്ങനെ നല്ല ഒരു എന്നാ ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ നല്ല നല്ല ഇതാണ് കാരണം എല്ലാം നമുക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലുമൊരു ക്ഷീണം വന്നാൽ അന്നേരം പോകാനുള്ളൊരു സൗകര്യം നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉണ്ട്